ഹലോ മെർമെയ്ഡ് ഫിഷറീസ് അല്ലേ മെർമെയ്ഡ് അല്ലേ ആ ഹലോ ഞാൻ വിളിക്കുന്നത് ഈ പുളിങ്കുന്നിൽ നിന്നാണ് വിളിക്കുന്നത് എനി എനിക്ക് ഒരു നാല് കിലോ കരിമീൻ വേണമായിരുന്നല്ലോ എന്നാ വിലയാണ് ഇപ്പം നാല് കിലോ കരിമീൻ വേണം കിലോയ്ക്ക് അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടുതലാണല്ലോ അത് വേറെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മറ്റേ ഇവിടെ നിന്ന് കുമരകത്ത് നിന്ന് വരുന്ന കരിമീനിനൊന്നും അത്ര വില ഇല്ലെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്നാ ഇത്ര അറുന്നൂറ് രൂപ വച്ച് കൂട്ടുന്നത് ഇതെങ്ങനെ നിങ്ങൾ ഫ്രഷാണോ ഇത് വെട്ടി വൃത്തിയാക്കി ഒക്കെ തരുമോ അല്ലപ്പാ എന്തായാലും ഞാൻ ഇത്രയും കൂടുതൽ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തരാൻ പറ്റത്തില്ലേ ഇച്ചിരി കൂടെ ഒന്ന് വില കുറയ്ക്കാൻ പറ്റത്തില്ലേ അല്ലപ്പ ഞാൻ ഞാന് ഞാൻ മാർക്കറ്റ് ചെന്ന് ചോയിച്ചപ്പഴത്തേക്ക് അഞ്ഞൂറ്റമ്പ അഞ്ഞൂറ്വായ്ക്ക് തരാന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ചോയിച്ചത് പിന്നെ ഇപ്പം ഞാൻ എന്തായാലും ഈ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ നല്ലത് പോലെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് വിളിച്ച് ചോദിച്ചത് അറുന്നൂറെന്ന് പറഞ്ഞ് അറുന്നൂറെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ആ ആ അത് ശരി ആ കരിമീൻ കരി ആ നിങ്ങൾ ഈ കരിമീനാണെന്ന് പറഞ്ഞ് മുഴുവൻ തിലാപ്പിയാണോ കൊടുക്കുന്നത് ഇനി അല്ല അതറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്നതാന് ഇത് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പല കംപ്ലയിൻറ്റുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ പുള്ളി കരിമീനാണെന്നും പറഞ്ഞ് തിലാപ്പിയ വെട്ടി കൊടുക്കുന്നുണ്ട് സൂക്ഷിച്ച് മേടിക്കണമൊന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അ അപ്പോൾ നിങ്ങളുടേതിൽ ഈ സാധനത്തിന് അറുന്നൂറു രൂപ എന്നുള്ളതിന് അതിന് യാതൊരു വിലക്കുറവും ഇല്ലേ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാണ്

ആ ഏതായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളെ ആ നിങ്ങൾ ഇത്രയും വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ കടയിൽ വന്നിട്ട് ഈ സാധനത്തിൻ്റെ സാധനമൊന്ന് നോക്കട്ടെ ഞാൻ തിലാപ്പിയണ് എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതെ പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങൾ ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ കയ്യേറ്റം ചെയ്യാനൊന്നും ശ്രമിക്കല്ല കേട്ടോ നമ്മൾ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ്

ഓക്കെ ഓക്കേ എന്നാൽ ശരി ആയിക്കോട്ടെ ഓക്കേ എന്നാൽ ഓക്കേ ശരി